കോട്ടയമാണ് എന്റെ സ്വദേശം കോട്ടയമെന്ന് പറയുമ്പോള് ഇവിടെ പ്രധാനമായിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കുമരകം ഇല്ലിക്കക്കല്ല് ഇലവീഴാപൂഞ്ചിറ വാഗമണ് തുടങ്ങിയവയാണ് കുമരകം ബേഡ് സാന്ച്വറി ഇല്ലിക്കക്കല്ല് വാഗമണ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വളരെ നല്ല രീതിയില് ടൂറിസം മേഖല വളര്ന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങള്ക്കൊക്കെ അടുത്തായിട്ട് പ്രത്യേകിച്ച് കുമരകം എടുക്കുമ്പോള് നമുക്ക് ഒരുപാട് റിസോർട്ടുകള് താമസസൗകര്യങ്ങൾ ഒക്കെയുണ്ട് അതുപോലെ തന്നെ ഡിഫറെൻറ് ടൈപ്പ് ഓഫ് ഫുഡ് തുടങ്ങിയവ എന്നാൽ ഇല്ലിക്കക്കല്ല് റൂട്ട് എന്നൊക്കെ പറയുന്നത് അധികം കടകളോ റസ്റ്റോറൻറുകളോ അങ്ങനെയൊന്നും ഇല്ല ഈ സ്ഥലങ്ങളുടെയൊക്കെ അടുക്കലായിട്ട് കൂടുതല് റിസോർട്ടുകളും റെസ്റ്റൊറന്റ്റുകളും ഒക്കെ വരികയാണ് എങ്കില് കുറച്ചുകൂടി ടൂറിസം മേഖലയ്ക്ക് അത് നല്ലതായിരിക്കും